ഞാൻ നമ്മളുടെ കൂടുതൽ ഇഷ്ടമുള്ള നിർത്താവതരണമെന്നുവച്ചാൽ നമ്മളുടെ കൂട്ടായ്മയായ അയൽക്കൂട്ടം അങ്ങനത്തെ പരിപാടികളിലക്കെ നമ്മളുടെ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നതും ന്നെ അങ്ങനെ ഉള്ള നമ്മളുടെ കേരളത്തനിമയായ തിരുവാതിര കൈകൊട്ടിക്കളി അങ്ങനെയുള്ള കളികളൊക്കെ കളികളിലൊക്കെ പങ്കെടുക്കുന്നതും അങ്ങനയൊക്കെ അതിലൊക്കെ പങ്കെടുക്കാനൊക്കെയാണ് എനിക്ക് നമുക്ക് കൂടുതലിഷ്ടം നമ്മള് അങ്ങനത്തെല്ലാം അങ്ങനത്തെ പരിപാടികൾക്കൂള്ളാണ് കൂടുതൽ പങ്കെടുക്കുന്നതും നമ്മള്ക്ക് അല്ലാത്ത മറ്റുള്ള പരിപാടികളിലൊന്നും നമുക്കധികം ഇതില്ലാ നമ്മളിപ്പോള് കൂട്ടായ്മയിൽ കൂടെ പോകും നമ്മളൊരു കൂട്ടായ്മയിലുള്ള ആൾക്കാരൊന്നിച്ച് നമ്മള് തിരുവാതിരക്കളി കൈകൊട്ടിക്കളി അങ്ങനത്തെ കളികളൊക്കെ കളിക്കും